ഞാന് എൻ്റെ മക്കൾക്കു വേണ്ടി വാങ്ങിയ അ പുസ്തകം അതില് ഞാൻ വെക്കേഷൻ സമയം ആയതുകൊണ്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് ഗെയിമുകളും കുറച്ച് വർക്ക് എക്സ്പീരിയൻസുമുള്ള ബുക്ക് വാങ്ങി വാങ്ങിയത് പക്ഷെ അതിലേത്തെ കണ്ടൻസും അതിലേത്തെ ആ ഗെയിമുകളായാലും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവർക്ക് വർക്ക് ചെയ്യാനും അവർക്കു മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള കണ്ടൻസുള്ള ബുക്കായിരുന്നു എനിക്കു കിട്ടിയത് വളരെ മോശമായ ആ ബുക്കിന് എനിക്ക് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസാണ് ആ ബുക്കില്നിന്നു കിട്ടിയത് അതുകൊണ്ട് എനിക്കാ ബുക്ക് വളരെ തീരെ താല്പര്യപ്പെട്ടില്ല